ഞങ്ങളുടെ കുടുംബമെന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ മൂന്ന് മക്കളും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണ് നല്ല രീതിയില് സന്തോഷത്തോടെ പോവുന്ന ഒരു കുടുംബാണ് ഹസ്ബൻഡിന് ജോലി ഉണ്ട് ഞാനും വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് മക്കള് മൂന്നും പഠിക്കുന്നതാണ് പിന്നെ ഉമ്മ ആണെങ്കിലും വീട്ടിലാണ് ഇടക്കെന്തെങ്കിലും ചെറിയതരത്തിലുള്ള ജോലികളുണ്ടെങ്കിൽ അതിന് പോകുന്നുണ്ട് പിന്നെ കുഴപ്പമിലാണ്ട് പോകുന്നു കുടുംബം സന്തോഷത്തോടെ തന്നെയാണ് പോവുന്നത് എല്ലാരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഉള്ള നിമിഷങ്ങള് ഫുഡ് കഴിക്കല് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്നുകൊണ്ടാണ് പിന്നെ നല്ല രീതിയില് പോവുന്നു പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ ചെറിയ നമ്മളുടെ പൈസകളുടെ ടൈറ്റും കാര്യങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ജീവിക്കണമെങ്കില് എന്താ പറയുക ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്ത് പോവാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ആയി എല്ലാരും കൂടെ സഹകരിച്ച് അങ്ങനെ പോവുന്നുണ്ട് പിന്നെ ഒരു ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോൾ കറണ്ട് ബില്ലാണെങ്കിലും ഒരുപാട് വെള്ളത്തിൻ്റെ ബില്ല് കറണ്ട് ബിൽ അങ്ങനൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ചിലവുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പൊൾ അതിൻ്റെയൊക്കെ ഇടയിലൂടേം സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ആക്കി എല്ലാരും സന്തോഷത്തോടെ ജീവിച്ച് പോവുന്ന ഒരു കുടുംബമാണ് പിന്നെ സുഹൃത്തുക്കള് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്താ പറയുക നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുൾ ആണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്ക് വെക്കാനും നമ്മുടെ കൂടെ നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി എത്താനും ഒക്കെയായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവര് നമ്മുടെ വീട്ടിലൊക്കെ എപ്പളും വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിച്ച് വളരെയേറെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒന്നിച്ച് എല്ലാരും കൂടെ പുറത്ത് പോവാറുണ്ട് വരുന്നുണ്ട്